ഇപ്പോൾ നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്കെന്ന് പറയുമ്പോൾ വെറ്ററിനറി ഡോക്ടർമാരൊക്കെ ഒരുപാടായി കാരണം നമ്മുടെ മേഖല തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഒക്കെ ഉള്ളോണ്ട് ഡോക്ടറുമാരു ഒന്നും ഇപ്പോൾ കിട്ടാനില്ല കാരണം ഒരുപാട് ഡോക്ടറുമാരൊക്കെ ഇപ്പം നമ്മുടെ സമൂഹത്തിലിപ്പോൾ നമ്മുടെ പ്രദേശത്തു തന്നെയുണ്ട് അപ്പോൾ അവരൊക്കെ എന്താ പറയാ ഇപ്പോൾ ഇപ്പോൾ പശുക്കൾക്കായാലും പട്ടികൾക്കായാലും എല്ലാം മൃഗങ്ങൾക്കുള്ള ചികിത്സകൾ അവർ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ മരുന്നുകളും കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുകയും നമുക്കത് ഏതളവിൽ കൊടുക്കണം എന്ന് എല്ലാ കാര്യങ്ങളും ഓരോ അസുഖത്തിനും അതിൻറ്റേതായ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ അവർ കുറിച്ച് തരുന്നുണ്ട് അപ്പോൾ അതിൻറ്റേതായ രീതിയിലൊക്കെ നമുക്കെന്താ പറയാ ഡോക്ടറുമാരെക്കൊണ്ട് നല്ല ഉപയോഗമാണിപ്പോൾ നടക്കുന്നത് പിന്നെ ഞാനിപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഡോക്ടറിൻ്റടുത്തേയ്ക്ക് പോയത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായേനേം കൊണ്ടാണ് അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ബ്രീഡ് ആയതുകൊണ്ട് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു ബ്രീഡ് ആയതുകൊണ്ട് അതിൻ്റെ എന്താ പറയാ വാക്സിനേഷനും കാര്യങ്ങളും അതിനെന്തെങ്കിലും രോഗമുണ്ടോ അങ്ങനെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടീട്ട് ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ അവർ നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങമൊക്കെയാണ് തരുന്നത് ഞാൻ കഴിഞ്ഞ മാസം കൂടി ഇപ്പോൾ ഒരു ഒരു മാസം എങ്ങാണ്ട് ആയിട്ടുള്ളൂ ഞാനെൻറ്റെ പട്ടിക്ക് കൊണ്ടു പോയിട്ട് കറക്റ്റ് വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അപ്പോൾ പട്ടിക്ക് എന്താ പറയാ വ്യായാമക്കുറവ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പറയുകയും നടത്താനൊക്കെ കൊണ്ടൊണോന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ അവർ തരുകയും അതൊക്കെ നല്ലൊരു മെച്ചമായിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ അതൊരു നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടർമാർ വന്നതോടുകൂടി